യാത്ര പോകാനൊക്കെ വളരെ ഇഷ്ടപ്പെടണ ഒരു വ്യക്തിയാണ് ഞാൻ കടൽ പർവ്വതങ്ങൾ ചരിത്ര സ്ഥലങ്ങൾ ക്ഷേത്രങ്ങൾ മതപരമായ സ്ഥലങ്ങൾ ബന്ധുക്കളുടെ വീട് ഇതൊക്കെ എനിക്ക് വളരെ ഇഷ്ടം ഉള്ളൊരു യാത്ര ചെയ്യാനിഷ്ടപ്പെടുന്ന സ്ഥലങ്ങളാണ് കടലിനെ കുറിച്ച് പറയുവാണെങ്കിൽ തീരത്തുകൂടെ പോവാനും ചാടിക്കളിക്കാനും പിന്നെ അതേപോലെ മണലിൽ ഇങ്ങനെ എഴുതി തിരമാല വന്ന് മായ്ക്കുക അതുപോലെത്തന്നെ കപ്പൽ കടൽ ബോട്ട് ഇതൊക്കെ കണ്ട് രെ ഇരിക്കാൻ എനിക്ക് വളരെയധികം ഇഷ്ടമാണ് അതിൽ യാത്ര ചെയ്യാനൊക്കെ അതേപോലെ മീൻ പിടിക്കണത് കാണാൻ ഒക്കെ വളരെ ഇഷ്ടമാണ് പിന്നെ പർവ്വതങ്ങൾ നമ്മൾ ഒരു കാട്ടിൽ കൂടി ഇങ്ങനെ പോവും പിന്ന അതിൽ കുറേ മൃഗങ്ങൾ പക്ഷികൾ കുന്നും ചരിവും നദികളും ഒക്കെ വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് ചരിത്ര സ്ഥലത്ത് പറയുവാണെങ്കിൽ പഴയ പിന്നെ രാജാക്കന്മാരെ കുറിച്ചും എല്ലാ എല്ലാ ചരിത്രങ്ങളും നമുക്കറിയാൻ സാധിക്കും ക്ഷേത്രത്തിനെ കുറിച്ചാണെങ്കിൽ അവിടെ കുറേ ആരാധകർ ഉണ്ടാവും പുതിയ പുതിയ ഒ എന്താണ് പറയുക നമുക്ക് അതിനെകുറിച്ചൊക്കെ കാണാനും ആസ്വദിക്കാനും ഒക്കെ വളരെ ഇഷ്ടമാണ് മതപരമായിട്ട് നമുക്ക് ആരാധിക്കുക പള്ളികളിലൊക്കെ പോയിട്ട് നമ്മൾ സകാത്ത് കൊടുക്കുക അതേപോലെ ആരാണ് ആരാധിക്കുക അപ്പം നമുക്ക് മനസ്സിന് നല്ല സന്തോഷവും ഒരു ഉന്മേഷമൊക്കെ നമുക്ക് കിട്ടും പിന്നെ ബന്ധുക്കളെ വീട്ടിൽ പോവുവാണെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധങ്ങൾ നിലനിർത്തുക സൗഹൃദങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി പോക്കും വരവും ഉണ്ടെങ്കിലൊക്കെയാണ് നമ്മളെ ബന്ധങ്ങൾ എന്നും നിലനിൽക്കുള്ളൂ